ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ നേരിട്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പം അത്യാവശ്യം നല്ലവണ്ണം ഞാൻ വരക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ആദ്യം തൊട്ടേ നല്ലവണ്ണം വരക്കുമായിരുന്നു അപ്പം എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ശേഷി ഒന്നും ഇല്ലാത്ത വീട്ടിലായിരുന്നു ആയത് കൊണ്ട് തന്നെ അതായത് നമ്മുക്ക് അതായത് വരേൻ്റെ ക്ലാസ്സിലൊന്നും പോയി പഠിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഓരോന്ന് കണ്ട് നല്ല അതായത് കണ്ടത് അതാ അത് എങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ ഞാൻ വരച്ച് അതായത് പേജിൽ പകർത്തി വെക്കുമായിരുന്നു അപ്പം അതൊക്കെ കാണുമ്പോൾ അമ്മക്കൊക്കെ ഒരു വിഷമമാണ് ഇവളെ പഠിപ്പിക്കാൻ വിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ഓരോ സാധനങ്ങൾ മേടിക്കാൻ അതായത് വരക്കാനാണെങ്കിലും നമുക്ക് പല പെൻസിലുകളും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ മേടിക്കാൻ ഉള്ളൊരു പൈസേൻ്റെ ഒരു കുറവ് പിന്നെ എന്ന് വെച്ചാൽ പ്രചോദനത്തിൻ്റെ കുറവ് പിന്തുണയുടെ അഭാവം അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കാരണം അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അതായത് ഒരു പ്രചോദനം കിട്ടാണ്ട് ആയത് എന്ന് എനിക്ക് തോന്നുന്നത്